ഞാൻ ഫ്രൈഡ് ചിക്കനായിരുന്നു ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മുപ്പത്തി രണ്ട് പീസ് വരുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ പാക്കാണ് ഞാൻ ഓഡര് ചെയ്തത് എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷനായിരുന്നു കുട്ടിയുടെ ബെർത്ത് ഡേ പാർട്ടിയായിരുന്നു അപ്പോഴതിലേക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഓഡ്റെയ്തത് അപ്പോള് പറഞ്ഞ് ഞാൻ വളരെ നേരത്തെ തന്നെ ഓഡര് ചെയ്തായിരുന്നു കൃത്യ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എത്തിയത് പറഞ്ഞ സമയത്തെക്കാളിലും ഒത്തിരി ലേറ്റ് ആയിട്ടാണ് എത്തിയത് അതുപോട്ടെ ഓക്കെ കിട്ടിയല്ലോ എന്ന് കരുതി പക്ഷേ കിട്ടിയപ്പോഴത്തേക്കും അത് വളരെ തണുത്തിട്ടുണ്ടായിരുന്നു തണുത്തൊരു ഭക്ഷണമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഒരു ഫ്രഷായിട്ട് തോന്നിയതേയില്ല അതിൻ്റെ കൂടെ കിട്ടിയ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു അതും വളരെ തണുത്ത് തണുത്ത് മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അതൊട്ടും ഫ്രഷായിരുന്നില്ല കഴിക്കാനേ തോന്നുന്നില്ലായിരുന്നു ചിക്കനാണെങ്കിലും ഒരു ഫ്രഷിൻ്റെ ഒരു സ്മെല്ലില്ലായിരുന്നു ഒരു ക്രിസ്പിനെസൊന്നും ഇല്ലായിരുന്നു കുറെ നേരം മുൻപേ ഉണ്ടാക്കി വച്ചൊരു ചിക്കൻ ആയിട്ടാണ് ഞങ്ങള്ക്കത് തോന്നിയത് കുട്ടികളൊക്കെ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാരുന്നു അപ്പോള് അവർക്ക് കൊടുത്താ കുട്ടികള്ക്ക് എന്തെങ്കിലും അസുഖം വരുവെന്നോ പേടിച്ച് അവർക്ക് കൊടുക്കാനും പറ്റിയില്ല ഒത്തിരി ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടില് അപ്പോള് അവരുടെ മുമ്പിലൊക്കെ നമുക്ക് അതൊരു ഷെയ്മായി പോയി അപ്പോള് പിന്നീട് നമുക്ക് പുതിയത് ഉണ്ടാക്കിയെടുക്കാൻ സമയമില്ലായിരുന്നു അതാ ഓഡ്റെയ്തത് എന്നിട്ട് കൂടി ഇങ്ങനെ ഒരു മോശം എക്സ്പീരിയൻസാണു നമുക്ക് ലഭിച്ചത് ഒന്നുകിൽ അത് നമക്ക് റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഫുഡ് നമുക്ക് കൊണ്ടെത്തിച്ചു തരേണ്ടതാണ്